ന്യത്ത വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാനുള്ള കാരണം കാരണം അത് ആരെങ്കിലും ഒരു ഡാൻസ് അവതരിപ്പിച്ചും അത് മറ്റൊരാളെ കണ്ടു അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു സ്റ്റേജിലായിരിക്കും ആ സ്റ്റേജിലുള്ളവര് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അത് കാണികൾ ആരെങ്കിലും കണ്ടു അവരിൽ ഒന്നോ രണ്ടോ പേര് അത് അടുത്ത ആൾക്കത് ഷെയർ ചെയ്യും പിന്നെ റീൽസ് കിട്ടുന്നതിന് അവരത് ഉപയോഗിക്കും പിന്നെ അത് പല പരിപാടികളിൽ ഉപയോഗിക്കും അങ്ങനെ അങ്ങനെ അത് പല ആൾക്കാരിലേക്കും അത് ഷെയർ ചെയ്തത് കൊണ്ട് തന്നെ അത് വളരെ നല്ലതാണെന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ അവര് അത് ഷെയർ ചെയ്യുന്നത് അവർക്ക് ഒരാൾക്ക് ഇഷ്ടപെട്ടതുകൊണ്ടാണ് മറ്റൊരാളിലേയ്ക്ക് അവർ അത് ഷെയർ ചെയ്യുന്നത് അത് അങ്ങനെ ഷെയര് ചെയ്തത് ഷെയര് ചെയ്ത് മറ്റൊരു അങ്ങനെ ഓരോരുത്തരും അതിനെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേനും തന്നെ സ്വാഭാവികം ആയിട്ട് അവരത് പിന്നെ വൈറലാക്കും ഫോണിലേക്ക് തന്നെ ഇട്ട് പലരേയും ഇതാക്കി പലരിലൂടെയും അത് കണ്ട് എല്ലാവർക്കും താല്പര്യമുള്ള അത് അങ്ങനെ അങ്ങ് വൈറലാകും